ഞാനിപ്പം നിൽക്കുന്നതെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ ചുറ്റുപാടിൽ ജലാശയമുണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്തൊരു കുളമുണ്ട് അത് നന്നായി പരിപാലിക്കുന്നുണ്ടോ എന്ന് ചോദച്ചാൽ നമ്മൾ കോളേജിൽ ഒരു സംഘടന തന്നെയുണ്ട് നാഷണൽ സർവ്വീസ് സ്കീം എന്ന് പറയുന്ന ഒരു കൂട്ടം കുട്ടികൾ തന്നേ ഉണ്ട് അത് സ്ഥിരമായി വൃത്തിയാക്കുന്നതും അത് സ്ഥിരമായി നോക്കി പരിപാലിക്കുന്നതുക്കെ നമ്മൾ തന്നെയാണ് അതിൽ അതിന് ചുറ്റുപാടും മര ചെടികൾ വച്ച് പിടിപ്പിക്കാം അതുപോലെ തന്നെ അതിൽ ഇട്ടിരിക്കുന്ന ഒരുപാട് അനാവശ്യ പദാർത്ഥങ്ങളൊക്കൊ ഉണ്ട് അതൊക്കെ നീക്കം ചെയ്യാൻ അതിനൊക്കെ നമ്മൾ പെൺകുട്ടികൾ തന്നെയാണ് ഇറങ്ങി ചെല്ലാറുള്ളത് ഇത്രയും കാലം അതേറ്റവും വൃത്തിയോടെ സൂക്ഷിച്ചതും ഞങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികൾ തന്നെയാണ് അത് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ നമ്മളുടെ അദ്ധ്യാപകരൊക്കെ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് നല്ല രീതിയിലാണ് ഇപ്പ്ം കുളം ഏറ്റവും വൃത്തിയുള്ള രീതിയിൽത്തന്നെയാണ് നമ്മൾ കൊണ്ട് നടക്കാറു ഉള്ളത് പിന്നെ ജലാശയം ആ ജലാശയത്തിലെ മീൻ പിടിക്കാനും ബോ ബോട്ടിങ് ഒക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല ചെറിയ ഒരു കുളമാണല്ലോ മീൻ പിടിക്കാൻ ചെറിയ കുട്ടികൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്ന് കളിക്കുമെങ്കിലും അങ്ങനെ മീൻ പിടിക്കാനും മാത്രമുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും ആ കുളത്തിലില്ല അതുപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളും നടത്താനും മാത്രം ഒന്നുമില്ല ഇവിടെ തൃശ്ശൂർ ഉള്ള ജലാശയങ്ങളൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുളങ്ങൾ അതുപോലെ തന്നെ തടാകങ്ങൾ പോലെ ഉള്ള ചെറിയത് ചെറിയത് ഉണ്ട് എന്നല്ലാണ്ട് വലിയ രീതിയിലുള്ള ജലാശയങ്ങൾ ദൂരെ ഒരു കടലോ കടവോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് മാത്രമേ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ എപ്പോഴെങ്കിലും വരൾച്ച അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വരൾച്ചയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല എപ്പോഴായാലും വെള്ളത്തിൻ്റെ ലഭ്യത ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ചില നേരത്ത് ഇങ്ങനെ നമ്മളുടെ സംഭരണിയിൽ വെള്ളം എത്താത്ത ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അത് ചില യന്ത്രങ്ങളുടെ പ്രവർത്തനം കുറയുന്നത് മൂലം മാത്രമാണ് അല്ലാതെ ഇങ്ങനെ വെള്ളം ഇല്ലാത്തരു അവസ്ഥ ഇന്നേ വരെ ഇവിടെ വന്നിട്ട് നേരിടേണ്ടി വന്നട്ടില്ല പല സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ട് വരാം പക്ഷേ നമ്മളുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഇന്നേ വരെ ഞാൻ നേരിട്ടട്ടില്ല ഇനി മുൻപോട്ട് നേരിടാൻ ഉള്ള അവസ്ഥ വരരുതേ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതും